നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള കായികവിനോദങ്ങള് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ഫുട്ബോള് ഹോക്കി അതുപോലെത്തന്നെ ടെന്നീസ് ബാറ്റ്മിന്റണ് ചെസ്സ് ഇതൊക്കെ ഒരുപാട് ജനപ്രിയമായിട്ടുള്ള കായികവിനോദങ്ങളാണ് അതിൽ പ്രശസ്തരായിട്ടുള്ള കായികതാരങ്ങള് എന്ന് പറയുമ്പോൾ സച്ചിന് എം എസ് ധോണി അതുപോലെ വിരാട് കൊഹ്ലി അതുപോലെ തന്നെ പി ആര് ശ്രീജേഷ് ഹോക്കി താരം പി ആര് ശ്രീജേഷ് അതുപോലെ തന്നെ ചെസ്സ് ചാമ്പ്യന് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഗ്നാനന്ദ അതുപോലെ തന്നെ ഫുട്ബോള് താരങ്ങള് ഒരുപാട് പേരുണ്ട് അതുപോലെ മെസ്സി റൊണാള്ഡോ പിന്നെ നമുക്ക് ഇപ്പോൾ ലോങ്ങ്ജമ്പിലുള്ള ഒരു താരമാണ് ശ്രീ ശങ്കർ അതുപോലെ തന്നെ ജാവലിൻ ത്രോയിലുള്ള ഒരു താരമാണ് നീരജ് ചോപ്ര അങ്ങനെ ഒരുപാട് കായിക താരങ്ങൾ ഒളള ഒരു സംസ്ഥനമാ അല്ലെങ്കിൽ ഒരു സംസ്ഥാനമല്ല രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ